ഇന്ന് ഇന്ത്യയിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഇപ്പോൾ ലഹരി വിരുദ്ധ ലഹരിക്കടിമപ്പെട്ട യുവത്വങ്ങള് അതുപോലെ സ്ത്രീകളും പുരുഷൻമാരും ഒരുപോലെ ലഹരിക്കടിമപ്പെട്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇൻഫ്രാ സ്ട്രച്ചറിൻ്റെ കുറവ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം അതിപ്പോൾ തൊഴിൽ മേഖലകളിലാണെങ്കിലും ഈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ മേഖലകളിലാണെങ്കിലും വ്യവസായിക മേഖലകളിലാണെങ്കിലും ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കുറവ് വരുന്നുണ്ട് അത് നമുക്ക് എല്ലാവർക്കും ഒരു വലിയൊരു വെ വെല്ലുവിളി തന്നെയാണ് അതുപോലെത്തന്നെ തൊഴിലില്ലായ്മ ഇപ്പോൾ വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ജോലി കിട്ടുന്നില്ല അതുപോലെത്തന്നെ പഠിച്ചിറങ്ങുന്ന ഓരോ യുവത്വങ്ങൾക്കും ഇപ്പോൾ ജോലി ഇപ്പഴും കിട്ടാതെ പഠിച്ചിറങ്ങിയിട്ട് മൂന്ന് നാല് വർഷം കഴിഞ്ഞിട്ടും ജോലി കിട്ടാതെ തേരാപാരാ നടക്കുന്ന ഒരുപാട് ആൾക്കാര് ഇന്നും നമ്മുക്കിടയിലുണ്ട് അപ്പം ഇതൊക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളാണ് ഇപ്പോൾ ലഹരി എന്ന് പറയുമ്പോൾ ചെറിയ സ്കൂള് സ്കൂളുകളില് മുതല് വലിയ വലിയ ആ ആൾക്കാർക്കിടയിൽ പോലും ലഹരി ഇപ്പോൾ ഉപയോഗം കൂടിവരുന്നുണ്ട് അപ്പം മയക്കുമരുന്ന് പോലുള്ളത് മിഠായികളിലും അതുപോലുള്ള ഈ ബാൻഡേർഡുകളിലും ഈ നമുക്ക് കയ്യിലൊട്ടിക്കുന്ന പോലെ അതുപോലെ വായിൽ വെക്കുന്ന അങ്ങനെ ഒരുപാട് ഏതൊക്കെയോ രീതിയിൽ ലഹരി ഇന്ന് എല്ലാ എല്ലാ സ്ഥലത്തും ഇന്ത്യയിൽ മൊത്തത്തില് സപ്ലൈ ചെയ്ത് കൊണ്ടിരിക്കുന്നു ഇതിനൊരു സംഘം തന്നെയുണ്ട് ഇതിപ്പോൾ സർക്കറിൻ്റെ ല് വലിയ വെല്ലുവിളിയാണ് ഇത് കണ്ടുപിടിക്കുക എന്നത് ഇപ്പോൾ ലഹരി ആരാണോ സപ്ലൈ ചെയുന്നത് അതിൻ്റെ ആദ്യ ആദ്യ അ ആരിൽ നിന്ന് ആരിലേക്കാണ് ലഹരി കൊടുക്കുന്നത് അവർ ആരിലൂടെയാണോ സപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത് സർക്കാർ അല്ലെങ്കിൽ പോലീസുകാരുടെ ഉത്തരവദിത്തമാണ് അതവർക്കൊരു വലിയ വെല്ലുവിളിയാണ് ഇത് എവിടുന്നാണ് സപ്ലൈ ചെയ്യുന്നത് എവിടുന്നാണ് അതിൻ്റെ ഉൾഭവം ഒന്നും ആർക്കും മനസ്സിലാകാൻ സാധിക്കില്ല അതുപോലെത്തന്നെ ഇന്ന് ആദ്യമൊന്നും ഒരുപാട് ആൾക്കാർക്കൊന്നും ജോലിയും ഒന്നും കിട്ടുന്നില്ല എന്നാൽ ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒപ്പരം നിന്ന് ജോലി എടുക്കുന്നുണ്ട് എങ്കിൽപോലും പഠനം കഴിഞ്ഞതിന് ശേഷം ഇപ്പം എഞ്ചിനീയർമാരൊക്കെ ഒരുപാട് എഞ്ചിനീയർസ് നമുക്കിടയിലുണ്ട് പഠിച്ചിറങ്ങിയ പക്ഷേ അവർക്കൊന്നും ജോലി ഇല്ല ഇപ്പം ഒരു ജോലി പോയാൽ മറ്റൊരു ജോലി കിട്ടും എന്നുള്ളോരു ഒറപ്പ് പോലും ഇല്ല അതുകൊണ്ട് തന്നെ ഇത് അതുപോലെ അടിസ്ഥാന ഹോസ്പിറ്റലിലായിക്കോട്ടെ ഇപ്പോൾ ആംബുലൻസിൻ്റെയും അതുപോലെ ഓപറേഷൻ തീയേറ്റർലെ ഈ പ്രധാന ഡോക്റ്റേഴ്സിൻ്റെയും പ്രൊഫഷണലായിട്ടുള്ള ഡോക്റ്റേഴ്സിൻ്റെയൊക്കെ അഭാവം ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഇന്നുണ്ട് അത് സർക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ ഒരു പ്രശ്നമാണ് അവര് എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് അവര് ഒരുപാട് ഒരുപാട് ഒരുപാട് അവർ സർക്കാറ് തന്നെ സഹായങ്ങൾ നൽകുന്നുണ്ട് എങ്കിൽപോലും എല്ലാകാര്യങ്ങൾക്കും സർക്കാർ നല്ല രീതിയിൽ ചെയ്യാൻ അവർക്ക് പറ്റുന്നുമില്ല